ഇതാക്കുന്നു ഒഴിവുള്ള സമയത്ത് സോഷ്യൽ മീഡ്യേനെ ആക്കുന്ന ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവക്കെയണ് ഇൻസ്റ്റഗ്രാമിലിക്കൽത്ത് ടൈംമ് പോണത് അറിയുന്നില്ല ഐൻ്റെ ഓരോ റീൽസ്സും പിന്നെ ഫ്രെണ്ട്സിനോട് ചാറ്റുന്നതൊക്കെ ടെക്നോളജി ഉള്ളതുകൊണ്ടു തന്നെയാണ് ഒഴിവുള്ള സമയത്ത് മൊത്തോം ഇൻസ്റ്റഗ്രാമ് കളിയ്ക്ക റീൽസ്സ് കണ്ടിരുന്ന് സമയം പോണതറിയില്ല പിന്നെ ഫേസ്ബുക്കിലൂടെ നമുക്കോരോ വർത്തകൾ കിട്ടും അതൊക്കെ നോക്കിനിക്കും പിന്നെ നമുക്ക് വേണ്ട ഇപ്പം സമയത്ത് നടക്കുന്ന എന്തക്കെയാണോ പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കൈഴിയും വാട്സപ്പിലൂടെ നമുക്ക് മറ്റുള്ളവരോട് സന്ദേശം പകരാൻ കഴിയും ചങ്ങായിമാരോടൊക്കെ സംസാരിക്കാൻ കഴിയും ഇങ്ങനൊക്കെയാണ് ഒഴിവുള്ള സമയങ്ങളക്കെ ചെയ്യുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാംലൂടെ നമ്മുടെ ഫോട്ടോസ്സും വിഡിയോസ്സൊക്കെ ഷെയറ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മൾ പുതിയ ഡ്രെസ്സക്കെ വാങ്ങി അവിടത്തേക്ക് ഫോട്ടോ എടുക്കുക എന്നിട്ട് ഫോട്ടോ എടുത്ത് ഇവിടെന്നിട്ടെത്തറ ലൈക്ക് കിട്ടും അതക്കെ നോക്ക ഇങ്ങനക്കെയാണ് നമ്മൾ ഒഴിവുള്ള സമയങ്ങൾ ചെയ്യാറുള്ളത്